മേ ഐ കം ഇൻ സർ സർ എൻ്റെ പേര് ശ്രീതു ഞാൻ ഇവിടെ ഇൻ്റർവ്യൂവിനു വന്നതാണ് ജോലി വേണ്ടിയിട്ട് ആ അതെ സർ ആ പോസ്റ്റിനു വേണ്ടി വന്നതാണ് ഇതാണ് സർ എൻ്റെ ഡോക്യൂമെൻ്റ്സ് ആണ് ഞാൻ പി ജി കഴിഞ്ഞു എംകോം ആയിരുന്നു ഗവണ്മെൻ്റ് ചിറ്റൂർ കോളേജിലാരുന്നു കഴിഞ്ഞത് ഫോർ പോയിൻ്റ് സെവൻ ആ ചെയ്തിട്ടുണ്ടായിരുന്നു പി ജി ചെയ്യുന്നത് ആ ഞാൻ ചെയ്തത് കസ്റ്റമർ സെർട്ടിഫിക്കേഷൻ ഓൺ എസ് ബി ഐ എന്ന ഓൺലൈൻ ബാങ്കിങ്ങ് ആയിരുന്നു അപ്പം പിന്നെ യോനോ യോനോ വച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എസ് ബി ഐയുടെ യോനോ ആപ്പ് വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ ആ അച്ഛൻ കൂലിപ്പണിയാണ്

ഓഡിറ്റിംഗിനെക്കുറിച്ചിട്ട് സാധാരണ കമ്പനികളിൽ ചെയ്യുമായിരുന്ന ആണ് മറ്റേ എക്കൗണ്ട്സ്കൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്

സർ തരുന്ന ജോലി ഞാൻ അത് വൃത്തിക്ക് ചെയ്യും അതിനിപ്പോൾ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്താണോയെന്നൊന്നും അല്ല നമുക്കിവിടെയൊരു തന്ന ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്യാമെന്നുള്ളതാണല്ലോ അത് അതിനു സാർക്കെന്നെ വിശ്വസിക്കാം എന്തായാലും ടെൻ തൗസൻ്റ് റുപ്പീസിനു മുകളിൽ കിട്ടണം എന്നുണ്ട് ആ നമ്മൾ ഫസ്റ്റായിട്ട് കയറുന്നതുകൊണ്ട് നമുക്ക് എല്ലാവിടെയും ടെൻ തൗസൻ്റ് ടെൻ തൗസൻ്റ് എന്നു കേട്ടുകേട്ടിട്ട് നമുക്ക് കൂടുതൽ ചോദിക്കുമ്പോൾ അവർ ജോലി തന്നില്ലെങ്കിലോ എന്നുള്ളൊരു പേടികൊണ്ട് നമുക്ക് ടെൻ തൗസൻ്റ് എന്നു ചോദിക്കുന്നതാണ് ഇല്ല സർ നൈറ്റ് ഷിഫ്റ്റിംഗ് ബുദ്ധിമുട്ടായിരിക്കും രാവിലെ സാധാരണ യൂഷ്വൽ ടൈം ബിസിനസ്സ് ടൈമിൽ രാവിലത്തെ ഷിഫ്റ്റ് ആയിരിക്കും സർ കൂടുതൽ കൂടുതലും

ആ ഓക്കേ സർ സർ ഞാൻ ഇതിനെക്കുറിച്ചു സെർച്ച് ചെയ്തിട്ടായിരുന്നു കമ്പനിയെക്കുറിച്ച് വളരെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ ഇതിൽക്കൂടുതൽ അറിഞ്ഞിട്ടുണ്ട് ആ ഓക്കെ സർ ഓക്കെ സർ താങ്ക് യു